ഇപ്പം ഇതിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കില് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എൻ്റെ ഊഹത്തില് ഞാൻ വിചാരിക്കുന്നു കുറവാണെന്നാണ് തോന്നുന്നത് കാരണമെന്തെന്നുവെച്ചാല് നമ്മളെയങ്ങനെ വിളിച്ചിട്ടുണ്ട് ഇപ്പം പല ആവശ്യങ്ങൾക്കായിട്ട് കോൺഫറൻസ് ഹാളില് നിന്ന് ഓഫീഷ്യലി വിളിച്ചിട്ടുണ്ട് പക്ഷേ വീഡിയോ കോൺഫറൻസുകള് നടത്തിയിട്ടുണ്ടോയെന്നുള്ള കാര്യത്തില് ഡൗട്ടാണ് കാരണം ഈ നടത്തിയിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത് അപ്പം നടത്തിയിട്ടുണ്ടോയെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു എൻ്റെ കോളേജില് ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങളൊരു ഗൂഗിൾ മീറ്റ് വെച്ചപ്പോള് ഒരു സാറിനെ ഞങ്ങള് ഇങ്ങനെ സംസാരിക്കുകയുണ്ടായപ്പോള് സംസാരിക്കുകയുണ്ടായപ്പം പല കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തു അപ്പോള് അതിൻ്റെ മെയിന് ഉദ്ദേശമെന്ന് പറയുന്നതെന്നുവെച്ചാൽ ജസ്റ്റ് വിളിക്കുക കാര്യങ്ങളെക്കുറിച്ച് ഓർഗനൈസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ആവശ്യമായിട്ട് എൻ്റെ ഇതിനായിട്ട് വേറെയൊരു ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതായതെൻ്റെ പള്ളിയില് ഒരാവശ്യത്തിനായിട്ട് അതായത് യുവജന സംഘം എസ് എം എ എന്നൊരു യുവജന സംഘം ഉള്ളപ്പം അതിന്റെയൊരു പരിപാടിക്ക് പോകാനായിട്ട് അവരുടെ ഒഫീഷ്യലി ആയിട്ടുള്ള ആ അവര് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോള് അതിൻ്റെ ഒഫീഷ്യലി ആയിട്ടുള്ളൊരു പാർട്ടായിട്ട് ഞാൻ ചെയ്തൊരു കാരണം എസ് എം എ എന്നുപറഞ്ഞ ആ എസ് എം എ എന്നുപറഞ്ഞ ആപ്പില് അതായത് എസ് എം വൈ എം എന്നുപറയുന്നൊരാപ്പുണ്ട് അത് ആ ആപ്പിൻ്റെ ഭാഗമായിട്ട് അതായത് എസ് എം വൈ എം എന്ന ഇതിൻ്റെ ആപ്പിൻ്റെ ഭാഗമായിട്ട് ഇത് എസ് എം എ എമ്മെന്ന പ്രസ്ഥാനത്തിൻ്റെ പങ്കാളിയാണെന്ന് അറിയിക്കുവാൻ വേണ്ടി ഒരു ഐ ഡി കാർഡ് അപ്പം ഈ ഐ ഡി കാർഡിൻ്റെ കാര്യമെന്ന് പറഞ്ഞാല് എസ് എം എ എം എന്നുപറഞ്ഞ യുവജന സംഗമത്തിന്റെ ഓഫീഷ്യലായിട്ടുള്ള ആപ്പുണ്ട് അപ്പോള് ആ ആപ്പിനകത്ത് കയറിക്കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ അതായത് ഞങ്ങളുടെ വികാരിയച്ചൻ അതായത് അവിടുത്തെ സെക്രട്ടറി ജനറലായിട്ടുള്ള ഒരു സെക്രട്ടറിയാണ് നമുക്ക് അസൈൻ ചെയ്തുതന്നത് ഈ എസ് എം വൈ എമ്മിൻ്റെ പരിപാടികൾക്ക് പോകുമ്പോള് എസ് എം വൈ എമ്മെന്ന പ്രസ്ഥാനത്തിലെ ഒരു പങ്കാളിയാണെന്ന ഒരു പാർട്ടിസിപ്പേഷൻ അതായതൊരു ഐ ഡി കാർഡെന്ന രീതിയിൽ അതിനെ കണക്കാക്കണം അതായിരുന്നു നല്ല രീതിയിലായിട്ട് ആപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ബന്ധപ്പെടുന്നതിനും അതിപ്പോള് ഒരു മീറ്റിങ് അതായത് എസ് എം വൈ എമ്മെന്ന പ്രസ്ഥാനം ഒരു ഏതൊരു പരിപാടിക്ക് ഇപ്പോള് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽപ്പോലും ഒരു മീറ്റിങ്ങിന് ഭാഗമാകണമെങ്കിലോ ഒരു മീറ്റിങ് അറ്റൻഡ് ചെയ്യുവാനായി ചെയ്യുവാനോ ഒരു മീറ്റിങിന് ഭാഗമാകാനോ വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്കതിനെ കണക്കാക്കാനും കാണാനായിട്ടും സാധിച്ചത് അപ്പം അതാണ് ഞാൻ മെയിനായിട്ട് ഇതിനകത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇന്നത്തെ ഇതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് ചെയ്യുന്നതെന്ന് വെച്ചാല് മെയിനായിട്ട് നമ്മള് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കാര്യങ്ങളൊക്കെയാണ് നമ്മള് മെയിനായിട്ട് ചെയ്യുന്നത് അപ്പോള് ഇതിനകത്ത് മോശം അനുഭവമുണ്ടായിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കില് പലപ്പോഴും അതായത് നമ്മളീ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങള് സംസാരിക്കുമ്പോള് ഇപ്പോള് ഒരു മീറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്കസ് ചെയ്യുകയാണെങ്കില്പ്പോലും നമ്മള് ഒഫിഷ്യൽ കമ്മ്യുണിക്കേഷൻ വിച്ച് ഈസ് ടു മച്ച് ഇമ്പോർട്ടൻറ് അതായതൊരു വീഡിയോ കോൺഫറൻസിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെക്കാൾ കൂടുതൽ എഫക്ടിവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ഒഫിഷ്യലായിട്ട് ഒരു വ്യക്തിയോട് ഇപ്പം ഒഫിഷ്യലായിട്ടൊരു കാര്യം പോയി സംസാരിക്കുമ്പോൾ അതിൻ്റെ നെഗറ്റീവെന്ന് വെച്ചുകഴിഞ്ഞാല് ഭയങ്കരമായിട്ട് കൂടുതലാണ് അപ്പം അതാണ് മെയിനായിട്ടിപ്പം ഇതിനായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നു അതായത് ഇപ്പോള് അപ്പോള് അതിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെന്നുവെച്ചാല് ഓഫീഷ്യലായിട്ട് ഓരോന്ന് ചെയ്താല് നല്ല രീതിയില് നമ്മളോട് പെരുമാറുകയും സംസാരിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പം ആ ഒരു നമ്മള് പ്രോപ്പര് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടെങ്കില് പ്രോപ്പര് ആയിട്ടുള്ള ഒരു ആശയവിനിമയം നമ്മുടെയിടയിൽ സാധ്യമാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പം അതാണ് മെയിനായിട്ടും ഇമ്പോർട്ടൻറ്റായിട്ടും ഞാനിതിനകത്ത് ചെയ്യാനായിട്ടും ഇപ്പോള് ഉദ്ദേശിക്കുന്നത് അപ്പോള് അതാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അതുപോലെത്തന്നെ വേറെ എന്തായിട്ടിതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കില് എന്തോ അപ്പം നല്ല അനുഭവങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഉള്ളത് വിദൂരമായിട്ടുള്ള മീറ്റിംഗുകളില് നമ്മള് മെയിനായിട്ട് നമ്മള് ഒഫീഷ്യലില് ചെല്ലുന്ന മീറ്റിംഗങ്സാണ് അല്ലാതെ ഗൂഗിൾ മീറ്റ്സ് അങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ ഭാഗമാകാനായിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലതൊരു അൺഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ കൂടെ സാധ്യമാകണമെന്നൊന്നും നമ്മള് ഇത് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ എന്നാലും നല്ല രീതിയില് അതൊക്കെ സാധ്യമാകുന്നുണ്ടെന്നാണ് നമ്മള് അപ്പം ഇപ്പം ഇതിനകത്തായിട്ട് നമ്മള് പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ആപ്പിൻ്റെ ഇതായിട്ടാണ് ഇങ്ങനെ നമുക്ക് ഈ പറഞ്ഞതല്ലാതെ അൺഒഫീഷ്യലായിട്ട് ഇങ്ങനെ പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോയെന്നൊക്കെ ഉണ്ടോ ഇല്ലയോയെന്നൊക്കെ ചിന്തിക്കേണ്ട ആവശ്യകത കൂടുതലാണ് അപ്പോള് അതിനകത്ത് മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങള് ഇതൊക്കെ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത് അപ്പം ഇഷ്ടപ്പെടാത്തായിട്ടൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ ഒഫീഷ്യലായിട്ടുള്ള മീറ്റിങ്ങുകൾ വെയ്ക്കുമ്പോള് ചിലപ്പം ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഇഷ്യൂസൊക്കെ ഫേസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് കമ്മ്യൂണിക്കേഷൻ്റെ ഇഷ്യൂസ് അത് ഫേസ് ചെയ്യാനായിട്ട് അത് പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇവിടെയുണ്ടെങ്കില് നല്ല രീതിയില് നമുക്കത് കാണാം കാരണം ചില മീറ്റിങ്സില് ക്ലാഷ് ഉണ്ടാകും അതായത് നമ്മള് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങള് മറ്റുള്ളവരെ അറിയിക്കുന്നില്ലെങ്കില് ഇപ്പോള് ഒരു പരിപാടി ഓര്ഗനൈസ് ചെയ്യുന്നതിലോ അതിപ്പോള് മീറ്റിങ് അറ്റൻഡ് ചെയ്യുന്നതില് പലപ്പോഴും ഇങ്ങനെ ഇതായിട്ടുള്ള കാര്യങ്ങളുണ്ടാകാം അപ്പോള് പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടെങ്കില് ഐ തിങ്ക് ഇട്സ് റിയലി ഗുഡ് ഫോർ ഔർ ഇതിലും നല്ല രീതില് ഹെൽപ്ഫുള്ളാകുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് കുറച്ചുകൂടെ നൈസായിട്ട് ഹാൻഡില് ചെയ്യുകയാണെങ്കില് നല്ല രീതിയില് മോശമായിട്ടുള്ള അനുഭവങ്ങളങ്ങനെ ഓഫീഷ്യലി കേട്ടിട്ട് അതായത് പല മീറ്റിങ്സില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന രീതിയില് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലാതെ അൺഒഫീഷ്യലായിട്ട് അങ്ങനെ ഇഷ്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നത്